ഹലോ ഇന്ഡെയിൻ ഗ്യാസ് ഏജന്സി അല്ലേ ഞാൻ അവിടുത്തെ ഒരു ഉപഭോക്താവാണ് വിളിക്കുന്നത് ഞങ്ങൾ പഴയ സ്ഥലത്തുനിന്ന് മാറി ഒരു പുതിയ സ്ഥലത്തോട്ട് താമസിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇതൊന്നും ഗ്യാസിന്റെ സിലണ്ടറുടെ മാറ്റി ആ വിലാസത്തിലോട്ടൊന്ന് മാറ്റിത്തരണം അതിനായിട്ടാണ് ഞാന് വിളിച്ചത് ഇപ്പോള് ആ ഞങ്ങളുടെ ഐ ഡി നമ്പർ തരാം ഇപ്പോള് ഞാന് നേരത്തെ ഞാന് താമസിച്ചുകൊണ്ടിരുന്നത് ചുങ്കപ്പാറയ്ക്ക് അടുത്തുള്ള ഒരു ലൈബ്രറിയുടെ അടുത്തായിരുന്നു ഇപ്പോള് ഞാന് താമസിക്കുന്നത് തീയറ്റര് ജംഗ്ഷനിലാണ് അപ്പം എന്റെ അഡ്രസും ഐ ഡി നമ്പരും പറയാം എന്റെ ഐ ഡി നമ്പർ വണ് സെവന് സീറോ ടു അഡ്രസ്സ് ടിറ്റി ജോസഫ് തടത്തേല് തീയറ്റര് ജംഗ്ഷന് നിയര് ടു സ് ലിറ്റില് ഫ്ലവര് ചര്ച്ച് ചുങ്കപ്പാറ നമ്പർ പിന്കോഡ് സ് ആറ് എട്ട് ആറ് അഞ്ച് നാല് ഏഴ് ഓക്കെ